ആ അതെ എന്താ വേണ്ടത്

എന്തിനുള്ള പച്ചക്കറിയാണ് ആ കല്ല്യാണം അതെയോ ആ ബൾക്കായിട്ടല്ലേ ആ എന്തുണ്ട് മേഡം ആ തീർച്ചയായും ആ എന്താ വേണ്ടത് ലിസ്റ്റുണ്ടോ പറഞ്ഞോളൂ കല്ല്യാണത്തിനല്ലേ സാമ്പാറിനുള്ളതോ അതെയാ ഓക്കെ തൗസൻഡ് ആൾക്കാരുടെ സാമ്പാറിൻ്റെ സാധനം മാത്രം മാത്രം ആണോ ആ ആ അതെല്ലാം വേറെ എടുക്കാനാ സാമ്പാറിൻ്റെ കൂടല്ല സാമ്പാറിൻ്റെ കൂടെ അല്ല എടുക്കണ്ടെ വേറെ ആണോ എടുക്കേണ്ടത് ആ ഓക്കെ അതിനെന്താ വേണ്ടത് കക്കിരി എത്രയാണ് വേണ്ടത് ഇരുപത് ഓക്കെ ഇരുപത് മതിയാവോ ഹലോ ആ പിന്നെ ആ എന്തൊക്കെ വേണം കരിയാമ്പ് മല്ലിച്ചപ്പ്ല്ല പിന്നെ ഈ കറി പൗഡറ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ആ ആ ഓക്കെ എല്ലാം കൂടെ ഒരു

ഒരു മൂന്നായിരം രൂപയോളം ആവും ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് ഞാൻ മൂന്നായിരംന്ന് പറഞ്ഞത് മൂന്നായിരം ഓക്കെ പോ രണ്ടായിരത്തഞ്ഞൂറ് ഓക്കെ ഓക്കെ താങ്ക് യൂ